ഇപ്പം നിയമങ്ങളൊക്കെ ദിനം പ്രതി മാറുക ആണല്ലോ ട്രെയിനിനാണെങ്കിലും നമ്മുടെ ഗതാഗതത്തിലും പഞ്ചായത്ത് മേഖലകളിലൊക്കെ പുതിയ പുതിയ നിയമങ്ങൾ വന്നു സദ്ദേശ സ്വയംഭരണ ഭരണഘടനയുടെ താക്കീഴിലും ഒത്തിരി ഒത്തിരി നിയമങ്ങൾ ഉണ്ട് അപ്പം അതിനെ ഒന്നാക്കിയാണ് നമുക്ക് വേസ്റ്റ് വലിച്ചെറിയാൻ പാടില്ല പിന്നെ മലിന ജലം പുറത്തോട്ട് ഒഴുക്കി വിടാൻ പാടില്ല അതേപോലെ തന്നെ പ്ലാസ്റ്റിക്ക് ഹരിത ജന ഹരിത കർമ്മ സേനകളെ ഏൽപ്പിക്കുക അവര് വരും നമ്മുടെ കീഴത്തുള്ളവരൊക്കെ നമ്മുടെ പുരയുടെ അതിൽക്കൂടെ ഒക്കെ വരും പിന്നെ അതേപോലെ തന്നെ ഡ്രൈവിങ്ങില് ഇപ്പം നമുക്ക് വണ്ടി ഒക്കെ ഓടിക്കുക ആണെങ്കില് രണ്ട് പേരെ ഇപ്പം കാറില് ഇരിക്കുന്നവരാണെങ്കില് സീറ്റ് ബെൽറ്റ് ഇടണം ഹെൽമെറ്റ് വേണം അങ്ങനെ ഉള്ള ദ നിയമങ്ങളൊക്കെ ആണ് അല്ലാതെ വേറെ പ്രത്യേകിച്ച് നിയമം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അങ്ങനെ ഒന്നും ഇല്ല സാധാരണ എല്ലാ ഇടത്തും ഉള്ള നിയമങ്ങള് തന്നെയാണ് നമുക്കും ഉള്ളത്